എൻ്റെ കാൽ മുട്ടിന് വേദന ആണ് തേയ്മാനം ആണെന്നാണ് തോന്നണത് ഞാൻ പെരും ബോട്ട് ആലപ്പുഴ ബോട്ടിംഗ് ഹൗസിംഗിന് വന്നത് ആണ് ആ അവിടെ ബോട്ടിൽ ഇരിക്കുന്ന അവർ പറഞ്ഞു ഇങ്ങനെ സഞ്ജീവനി ആശുപത്രിയിൽ ചെന്നാൽ അതിൻ്റെ വിശദമായ വിവരങ്ങളും കിട്ടും അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റുകളും കിട്ടുമെന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ താമസിക്കാൻ ഞാൻ വരാം അതിന് ഞാൻ തയ്യാറാണ് ഞാൻ വീട് ഞാൻ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം ആ അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ച് പറയാം ഡോക്ടറോട്